മലയാളഭാഷ എന്നത് ഏതു ഭാഷയെ കഴിഞ്ഞും വളരെ മെച്ചപ്പെട്ട ഭാഷയാണ് അത് മലയാള ഭാഷ പഠിച്ചിട്ടുള്ള ഒരാളെ വേറെ ഏതു ഭാഷകളിൽ പോയാലും ആ ഭാഷകളിൽ അവർക്ക് തിളങ്ങി നിൽക്കാൻ പറ്റും കാരണം മലയാളത്തിലെ അക്ഷരങ്ങളുടെ ഉച്ചാരണം പോലെ മറ്റൊരു ഭാഷകളിലും ഉച്ചാരണ ശുദ്ധി വേറെ ഒരു ലാംഗ്വേജിലും കാണത്തില്ല അത് ഉദാഹരണത്തിന് ള ഴ റ അങ്ങനെയുള്ള അക്ഷരങ്ങൾ നമ്മുടെ മലയാളം ഇതിലാണല്ലോ ഉള്ളത് അത് പഠിച്ച് ശീലിച്ച ഒരാൾക്ക് മറ്റ് ഏതൊരു ഭാഷയും നല്ല അനായാസമായിട്ട് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും വ്യാകരണത്തെപ്പറ്റി കൂടുതലായിട്ട് അറിയാൻ എനിക്ക് അധികം അറിയത്തില്ല എങ്കിൽപ്പോലും നമ്മുടെ മലയാള ഭാഷയ്ക്ക് നല്ല വ്യാകരണവും നല്ല ഉച്ചാരണവും ഉള്ള ഒരു ഭാഷയാണ് മലയാളഭാഷ നമ്മുടെ ആൾക്കാർ ഏതു ഭാഷയിൽ പോയാലും ഏത് ലോകത്തിൽ പോയാലും അവിടുത്തെ ഭാഷ നമ്മൾ പഠിച്ചിരിക്കും പക്ഷേ മറ്റൊരാളെ അവിടെ ഇവിടെ വന്ന് മലയാളം പഠിക്കുകയെന്ന് പറഞ്ഞാൽ അത് വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നാൽ ചില ആൾക്കാരൊക്കെ അത് കുറേ ഒക്കെ പഠിച്ചെടുക്കുന്നുണ്ട് എങ്കിലും എല്ലാ ഭാഷകളിലും വച്ച് ഏറ്റോം വളരെ ശ്രേഷ്ഠമായ ഒരു ഭാഷയാണ് നമ്മുടേത് മലയാളം ആ അതിനെ നല്ല രീതിയിൽ അതിന് അക്ഷരങ്ങൾ ഉച്ചരിക്കാനും അതിൻ്റെ സവിശേഷമായ രീതിയിൽ അത് നല്ല രീതിയിൽ പറയാനും മലയാളികൾക്കല്ലാതെ വേറെ ആർക്കും ഒട്ട് സാധിക്കത്തുമില്ല അങ്ങനെ പ്രത്യേകതയുള്ളൊരു ഭാഷയാണ് നമ്മുടെ മലയാള ഭാഷ അത് വ്യക്തമായ രീതിയിൽ അക്ഷരങ്ങൾ ഉച്ചരിക്കേുകയും അതിൻ്റെ വ്യാകരണം മനസ്സിലാക്കി നമ്മൾ സംസാരിക്കയും ചെയ്താൽ നമ്മുടെ ഭാഷയോളം മെച്ചപ്പെട്ട വേറെ ഒരു ഭാഷയും ഈ ലോകത്തിൽ ഇന്നില്ല